ഇപ്പം ആരോഗ്യപരിരക്ഷാ ആനുകൂല്യങ്ങള് നൽകുന്ന സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ചിട്ട് അറിയുമോന്ന് ചോദിച്ചാൽ സംരംഭങ്ങളെ കുറിച്ച് അങ്ങനെ അങ്ങനെയിപ്പം ആരോഗ്യസംരക്ഷണത്തിന് സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് പറയാം മെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം സർക്കാർ ഹോസ്പിറ്റല് അതെന്നെ അവര് തരുന്ന ഒരു വലിയ ഒരു പിന്നെ നമുക്കൊരു ഗുണമുള്ള കാര്യമാണ് ഇപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇറങ്ങിയിട്ടുണ്ട് ഉപകാരാണ് കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എല്ലാ സ്ഥലത്തും ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പം അ എല്ലാ ഏകദേശം എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു ഇത് വന്നൂന്നാണ് എൻ്റെ ഒര് അഭിപ്രായം അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളില് ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിനും ഇപ്പോൾ നമ്മളിപ്പം കിടക്കുവാണെങ്കില് നമുക്ക് വാർഡിലൊക്കെ ആണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് അതിനുള്ള പൈസയും ഒക്കെ അവര് നമ്മള് ആ അവര് നമ്മുടെ കാർഡിൽ നിന്ന് ആ പൈസ എടുക്കും അപ്പം ആ അത് വലിയൊരു ഉപകാരമാണ് കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൊറച്ചും കൂടെ സൗകര്യം കാര്യത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനേയും പോകാം അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആരോഗ്യ ഇൻഷുറൻസ് ആധാർ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്യണം പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പോൾ ഇതുവരെ കൊടുക്കാത്തവരാണെങ്കി നമ്മള് അക്ഷയയിലൊക്കെ പോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റെഡി ആയിക്കിട്ടും